തീർച്ചയായും ചിത്രരചന ആരും ആളുകൾക്ക് രോഗശാന്തി നൽകുന്നു അല്ലങ്കിൽ അത് രോഗശാന്തി നൽകാൻ പ്രയോജനകരമാണ് എന്ന് ഞാൻ കരുതുന്നുണ്ട് കാരണം ഇപ്പോൾ നമുക്ക് നല്ല പോസിറ്റീവ് വൈബ്സ് ആണ് ചില ചിത്രങ്ങള് നൽകുന്നത് ചില ചിത്രങ്ങളിൽ നോക്കുമ്പോൾ നമുക്ക് അത് എന്താ എ എ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് ചിലർക്കെങ്കിലും ഒരു പരിചയം ഉണ്ടാവില്ല എന്നാൽ ചിലർക്ക് ഒരാ അവർക്ക് അതിനുള്ള ഭാവന അല്ലെങ്കില് സർമാ സർഗാത്മകത അതൊക്കെ ഇണ്ടെങ്കിൽ നമുക്കൊരു ചിത്രം കണ്ടാൽ തന്നെ അതിലുള്ള അതിലൂടെ എന്താണ് ചിത്രകാരൻ സൂചിപ്പിക്കുന്നത് എന്താണ് മറ്റുള്ളവവർക്കായിട്ട് പകർന്ന് നൽകുന്നത് എന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ രോഗശാന്തി നൽകുന്നു എന്ന് ഞാൻ കരുതുന്നുണ്ട് ചിത്രരചന ആളുകൾക്ക് രോഗശാന്തി നൽകുന്നുണ്ട് അതുപോലെ തന്നെ എനിക്ക് ഒരു കലാകാരൻ ആകാൻ എൻ്റെ വ്യക്തി അല്ലെങ്കിൽ എൻ്റെ വ്യക്തിത്വത്തിൽ എനിക്ക് ഭാവന അതുപോലെ സങ്കട കഴിവുകള് അതൊക്കെ എൻ്റെ എനിക്കും ഉണ്ട് അതുപോലെ അച്ചടക്കം പിന്നെ അതിനോടുള്ള ഒരു പാഷൻ അതൊക്കെ എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കലാകാരൻ ആകാൻ ആകാൻ വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഇത്തരം ഒരു ഗുണങ്ങളൊക്കെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുമുണ്ട്